ഫിലിം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഫിലിം ക്യാമറകൾ ഞാന് കണ്ടിട്ടുണ്ട് എന്റെ അച്ഛന്റെ കൈയിലുമൊക്കെയായിട്ട് ഫിലിം ക്യാമറകൾ കണ്ടിട്ടുണ്ട് അവരുടെ കാലത്ത് ഏറ്റവും കൂടുതല് ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഫിലിം ക്യാമറ അപ്പം എന്റെ അച്ഛന്റെ കയ്യിലൊക്കെ അപൂർവ്വം ആയിട്ട് ഒരു ഫിലിം ക്യാമറ കൂട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കൊടുക്കുന്നതും കൂട്ടുകാര്ക്കു ഫോട്ടോ എടുക്കാൻ കൊടുക്കുന്നതൊക്കെയായിട്ടുള്ള ഫിലിം ക്യാമറ ഒരെണ്ണം എന്റെ അച്ഛന്റെ കൈയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൈയില് അങ്ങനെ ഒരു ക്യാമറ ഉണ്ടോ ഞാന് അങ്ങനെ വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഇല്ല ഞാന് ജനിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഫിലിം ക്യാമറ ഒക്കെ ഇല്ലാണ്ടായിരിക്കുന്നു അപ്പോഴത്തേക്ക് നോർമൽ ക്യാമറകൾ വന്നു തുടങ്ങി സാധാരണ ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന ക്യാമറകൾ കണ്ടു തുടങ്ങി അതിലും കുറച്ച് ഇത് ഇല്ലാത്തതു പോലെ തന്നെ ഒരു സാധാരണ ക്യാമറ ഒരു ഫോട്ടോ എടുക്കാം അധികം എഡിറ്റിംഗും കാര്യങ്ങളൊന്നും പറ്റാത്ത സാധാരണ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ക്യാമറകൾ ആയിരുന്നു ഞാൻ ഉണ്ടായപ്പോൾ ഫിലിം ക്യാമറ കളിൽ ഫോട്ടോ എടുക്കുന്നതിന്റെ വ്യത്യസ്തത എന്നു പറയുമ്പം അത് അതിൽ ഒരുപാട് മായമൊന്നും ഉണ്ടാവില്ല വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളൊക്കെ മുഖങ്ങൾ ഒപ്പിയെടുക്കും അതിൽ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസ വ്യത്യാസങ്ങൾ വരുത്തിയെടുക്കാനും നമുക്ക് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ അത് അപ്പോൾ അപ്പം നമുക്ക് കൈയിൽ കിട്ടും കൈയിൽ കിട്ടുന്നതു കൊണ്ടുള്ള ഉപകാരം എന്നു പറയുന്നത് അപ്പോൾ തന്നെ നമുക്കത് കാണാം അത് സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ആ ഫോട്ടോ ഇങ്ങനെ നമുക്ക് പെട്ടെന്നു തന്നെ കാണാം അപ്പോൾ ആ നേരത്തുള്ള ഒരാളുടെ സന്തോഷം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് പെട്ടെന്ന് ഒരു പഴയകാലത്ത് ഫോട്ടോ എടുക്കുന്നത് തന്നെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന അങ്ങനെ സംവിധാനമുള്ള ഒരു ഫോട്ടോ ഫിലിം ക്യാമറ അങ്ങനെ കയ്യിൽ കിട്ടുമ്പം അത് ഭയങ്കര ഒരു വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് അങ്ങനെ ഒരു ഫോട്ടോ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നു പറയുന്നത് പണ്ടത്തെ കാലത്ത് കാശ് ഉള്ളവരുടെ കൈയില് മാത്രം ഉണ്ടാകുന്നതാണീ ക്യാമറയും ഫോട്ടോ ഒക്കെ അപ്പം അപൂര്വ്വമായി സാധാരണക്കാർക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യിൽ കിട്ടുമ്പം അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്